പതിനാല് ഒന്ന് രണ്ടായിരത്തി ആറ് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഏഴ് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഏഴ് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ആറ് രണ്ട് നാല് രണ്ടായിരത്തി ഏഴ്